എനിക്ക് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം എന്ന് വച്ചാൽ ബൈക്കാണ് ബൈക്കിൽ ഞാൻ എൻ്റെ കുടുംബക്കാരൊപ്പമോ ഒറ്റയ്ക്കായിട്ടോ കൂടുതൽ യാത്ര ചെയ്യുന്നത് ഈ ബൈക്കിൽ തന്നെയാണ് എനിക്ക് ഒരു ബൈക്ക് ഉണ്ട് പൾസർ എന്നാണ് അതിൻ്റെ അതിൻ്റെ പേര്

ഞാൻ എൻ്റെ കുടുംബക്കാരെല്ലാം കൂട്ടി അ ഒത്തൊരുമിച്ച് എങ്കിലും എൻ്റെ കുടുംബക്കാരെ ഈ ബൈക്കിൽ ഒക്കെ ഞാൻ കയറ്റാൻ ആഗ്രഹിക്കാറുണ്ട് ആ ആഗ്രഹം സാധിക്കുകയും ചെയ്തിട്ടുണ്ട്

ഏറ്റവും നല്ലൊരു അനുഭവം തന്നെയാണ് അത് രാത്രി ആണ് രാത്രി ബൈക്ക് ഓടിച്ചാലാണ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നത് ബൈക്കിനെ കൊണ്ട് ആ പിന്നെ ബൈക്ക് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമായിരിക്കും ബൈക്ക് വാങ്ങണോ അ ഞാൻ കുറെ വാഹനങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ ബൈക്കിലൂടെ യാത്ര ചെയ്യാനാണ് ജീപ്പിനും